പണ്ടത്തൊരു തലമുറ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്തു കൊണ്ടിരുന്നത് കൃഷി കാര്യങ്ങളായിരുന്നു അവരുടെ ഒരു വരുമാന മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിരുന്നത് പിന്നെ പിന്നെ ആയിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ലാഭങ്ങളും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതിനനുസരിച്ചും ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ച കൃഷിയിൽ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ കൃഷി എന്ന് പറയുന്ന സാധനം എല്ലാവരും തന്നെ ഉപേക്ഷിച്ച് തുടങ്ങിയിരുന്നു അപ്പോൾ ഈ പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയിലേക്ക് വന്ന് തുടങ്ങിയപ്പോഴത്തേയ്ക്കും ആർക്കും തന്നെ കൃഷിയെന്നു പറയുന്ന സാധനത്തിനെക്കുറിച്ച് വലിയ താല്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മണ്ണിലിറങ്ങി പണിയെടുക്കുക എന്ന് പറയുന്നത് അത്രയധികം ഇഷ്ടമുള്ളൊരു കാര്യമൊന്നുമല്ലാത്ത രീതിയിലേക്ക് മാറിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ ഏത് രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യണം എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണമെന്നും അറിയാത്ത കുറേ അധികം ആൾക്കാർ ഇപ്പം നമ്മുടെ തലമുറയിൽ തന്നെ വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ രീതിയിലും പണ്ട് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയൊന്നും അറിയാത്ത ഇഷ് ഒരുപാട് ആൾക്കാർ കാര്യങ്ങൾ വരുന്നുണ്ട് കൃഷിയെന്നു പറയുന്നൊരു സാധനത്തിനെ ഇപ്പം ആർക്കും അത്ര താല്പര്യമുള്ളതോ എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്നോ അതിൻ്റെ രീതികളോ ഒന്നും അറിയാത്ത തലമുറയാണ് ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ കൃഷിയെന്നു പറയുന്ന സാധനം നമുക്ക് അത്രയും അധികം ഇമ്പോർട്ടൻറ്റുള്ള കാര്യമാണെന്നുള്ളത് ഇപ്പോഴത്തെയൊരു തലമുറയ്ക്ക് അറിയത്തുപോലുമില്ലാത്തൊരു അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് മുന്നിൽ എത്തുന്നുണ്ട് അത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ അരികിലേക്കെത്തുക എന്ന രീതിയാണ് വരുന്നത് അപ്പം അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ നമ്മുടെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് പിന്നെ കൃഷിയെന്ന് പറഞ്ഞൊരു അതായത് നമ്മുടെ വരുമാനമാർഗ്ഗത്തിലേക്കെത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട് അപ്പം എല്ലാവരും കൃഷി എന്നു പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസൊ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയാത്ത തലമുറയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചുറ്റും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൃഷിയെന്നുപറയുന്ന ഒരു ഇതിന് ആരും തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പം കൃഷിയെന്ന് പറയുമ്പോൾ അത്രയധികം ഇമ്പോർട്ടൻസ് ആയൊരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് നമ്മുടേതായ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത് വിഷോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കഴിക്കാനും ഒക്കെ പറ്റുന്നൊരു അവസ്ഥ ഇതാണ് പക്ഷെ ഇപ്പോഴത്തെ തലമുറ അതൊന്നും ചിന്തിക്കുന്നു പോലുമില്ല അവരവരുടെ ലൈഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ മറ്റു രാജ്യങ്ങളെയൊക്കെ ആശ്രയിക്കുമ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്